എത്ര നേരം പാചകം ചെയ്തിരിക്കാൻ നിങ്ങൾക്കിഷ്ടമാണെന്ന് ചോദിച്ചാൽ നമ്മളുണ്ടാക്കുന്ന പാചകത്തിൻ്റെ സ്വഭാവമനുസരിച്ചിരിക്കും എനിക്ക് പാചകം എളുപ്പത്തിൽ ഞാൻ ഏറ്റവുമധികം എളുപ്പത്തിൽ ഉണ്ടാക്കിയ ഒരു പാചക വിധി ഏതാന്ന് ചോദിച്ചാൽ നെയ്ച്ചോറാണ് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാളും രുചികരമായും സമയ ലാഭവുമായിട്ട് എനിക്ക് കിട്ടിയത് ഞാൻ നെയ്ച്ചോറുണ്ടാക്കിയപ്പോഴാണ് കൂടുതൽ രുചികരവുമായിരുന്നു